ഹലോ പറയൂ അതെ ഐ ഹോസ്പിറ്റലാണ് ഐ സ്പെഷ്യലിസ്റ്റ് ദിവ്യയാണ് സംസാരിക്കുന്നത് ആ പറയൂ അച്ഛനെത്ര ഏജുണ്ട് ആ അപ്പോൾ അച്ഛന് ചിലപ്പോൾ തിമിരത്തിൻ്റെ സ്റ്റാർട്ടിങായിരിക്കാം ആ ആ നമുക്ക് അവിടെ വന്ന് ഓ ആ ഹോസ്പിറ്റല് വരാണെങ്കിൽ നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാം കേട്ടോ ആ അച്ഛന് ഷുഗറ് പ്രഷറൊക്കെയുള്ള ആളാണോ അതെ അല്ലേ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പം നിങ്ങൾ ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് കൊണ്ട് വരൂ ഷുഗറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആ ഹോസ്പിറ്റലോട്ട് വരൂ അപ്പോൾ മുൻപ് കാണിച്ചിട്ടുള്ള വല്ല റഫറൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കായിട്ട് വന്നോളൂ ഞായറാഴ്ച മാത്രം ഹോസ്പിറ്റലുണ്ടായിരിക്കില്ല ബാക്കി എല്ലാ ദിവസങ്ങളുണ്ടായിരിക്കും പറ്റുമെങ്കിൽ നിങ്ങൾ തിങ്കളാഴ്ച തന്നെ വരുകയായിരിക്കും നല്ലത് ഒരു ദിവസം മാത്രമേ വേണ്ടൂ ഓപ്പറേഷൻ പെട്ടെന്ന് കഴിയും ഒരു മണിക്കൂറിൻ്റെ ഓപ്പറേഷന് സമയം എടുക്കൂള്ളൂ പക്ഷേ നമ്മൾ മുന്നേ കൂട്ടി വന്ന് തലേ ദിവസം തന്നെ വന്നിട്ട് അഡ്മിറ്റാവാ അവിടെ എന്നിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെയുണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പിറ്റത്ത ദിവസം ഓപ്പറേഷന് നിൽക്കൂള്ളൂ ഓപ്പറേഷൻ കഴിഞ്ഞാലും ആ അതേപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അതെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതായതിപ്പോൾ കൈ കണ്ണിനല്ലേ അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസത്തിന് ശേഷം തന്നെ മേൽ നനച്ചാൽ മതി മേൽ കുളിക്കൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ തല ഒരു വീക്ക് വരെ അല്ലെങ്കിൽ ഒരു രണ്ട് വീക്ക് വരെ നമ്മൾ ശ്രദ്ധിക്കണം തല നിങ്ങൾ പറ്റുമെങ്കിൽ നനച്ച് തുടക്കൊക്കെ ചെയ്യാം പക്ഷേ തല ഇളകരുത് കണ്ണും തലയും വളരെ കോൺടാക്റ്റുള്ളതാണപ്പോൾ തല ഇളകാതെ സൂക്ഷിക്കണം തല നമുക്ക് നനച്ചൊക്കെ തുടക്കാവുന്നതാണ് രണ്ട് വീക്കിന് ശേഷം മാത്രം നമ്മൾ തലയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ടൊക്കെ കുളിക്കുന്ന കാര്യത്തിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ നമ്മൾ അലർജി ടെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം തന്നെ ഓപ്പറേഷന് നിൽക്കുള്ളൂട്ടോ അതാദ്യം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ആ ശേഷം മാത്രമേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യൂള്ളൂ അതിനെ പറ്റിയൊന്നും വിഷമിക്കേണ്ട ഏകദേശം ഒരു അൻപതിനായിരം നമ്മൾ കണക്കാക്കണം അതിൻ്റെ താഴെ മുകളിലൊക്കെയായിട്ട് ആ ഏകദേശം വരുവായിരിക്കും ഏകദേശമൊരു അൻപത് നമ്മുടെ കൈയ്യിലുണ്ടായിരിക്കണം ഉണ്ടുണ്ട് നമുക്കിവിടെ ചികിൽസിക്കാനൊക്കെ കിടത്തി ചികിൽസിക്കാനൊക്കെയുണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ തിങ്കളാഴ്ച കാലത്ത് തന്നെ വന്ന് രജിസ്റ്റെർ ചെയ്തിട്ട് ടോക്കണെടുത്തോളു പത്ത് മണി ആവുമ്പഴത്തേനും ഞാൻ ഒ പിൽ വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് കൺസൾട്ട് ചെയ്തേന് ശേഷം അച്ഛനെ കൊണ്ട് വന്ന് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ പറയാം അപ്പൊതക്കെ നോക്കീട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ വെനസ്ഡേ തന്നെ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം കേട്ടോ ഓക്കെ